നമ്മളെ ലോകം ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട് പണ്ട് കാൽത്തെന്നൊക്കെ പറയുമ്പം മൊബൈൽ ഫോണുകള് അങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോന്ന് പറയുമ്പോൾ എല്ലാ ചെറിയ കുട്ടികളുടെ അടുത്ത് വരേണ്ട് മൊബൈൽ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടത്തെ വീടും ഇപ്പത്തെ വീടക്കെ വച്ച് നോക്കി നോക്ക് പണ്ട് ഫുൾ പാവപ്പെട്ടവരൊക്കെ ആയിരിരുന്നു ഇപ്പാണെ നമ്മള് ഇവിടേള്ളത് ഫുള്ള് പണക്കാര് അങ്ങനെ ഒരു വേർതിരിവും അങ്ങനെയൊക്കെ ആണ് പണ്ടൊക്കെ റോഡുകളും വളരെ മോശായിരുന്നു ഇപ്പം അത്യാവശ്യം എല്ലാ റോഡുകളും തന്നെ ഹൈ ടെക് ആയി നല്ല പണിയൊക്കെയെടുത്ത് സെറ്റപ്പാക്കി പിന്നെ പണ്ട് നമ്മള് യാത്ര ചെയ്ത് കൊണ്ടിരുന്ന കുതിര വണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ബസ്സ് അങ്ങനെ കുറെ നല്ല വണ്ടികള് എല്ലാവർക്കും തന്നെ വണ്ടികള് നല്ല കാര്യങ്ങളക്കെണ്ട് എവിടെ പോകാനാണ് അങ്ങനേള്ളതിനൊക്കെ പിന്നെ മരങ്ങളായാലും പണ്ടൊക്കെ എല്ലാവരും നല്ല രീതിക്ക് നമ്മള് പറമ്പും കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കുവായിരുന്നു ഇപ്പാണങ്കില് എല്ലാ വെട്ടി നശിപ്പിച്ചും അവിടെ വല്ല ബിൽഡിങും ഫാക്ടറി അങ്ങനെ എന്തേലുമൊക്കെ പണിത് അവരവിടെ സെറ്റിലാവാൻ വേണ്ടീട്ടുള്ള ഇതാണ് പണ്ട് പാടി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാരും ഫണ്ട് കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നു അങ്ങനെയൊക്കെ പണ്ടുള്ളവര് കൃഷി ചെയ്ത് ഫുഡുണ്ടാക്കും അങ്ങനെ കഴിക്കുന്നായിരുന്നു